ചെറുപ്പം മുതലേ ഞാൻ തയ്യലിൽ താൽപ്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു തയ്യൽ കുറേശ്ശെ പഠിച്ച് പഠിച്ച് ഞാൻ എൻ്റെതായിട്ടുള്ള രീതിക്ക് എൻ്റെ വസ്ത്രങ്ങളൊക്കെ ചെയ്യാൻ ഉണ്ട് തയ്ച്ചെടുക്കുന്നതിന് ഞാൻ സമയം കണ്ടെത്തിയിരുന്നു എൻ്റെ വസ്ത്രങ്ങൾ ആദ്യം ഒക്കെ സ്കേർട്ടും ബ്ലൗസും തയ്ച്ചു അടിയിൽ ഇടുന്ന വസ്ത്രങ്ങളൊക്കെ തയ്ച്ച് എനിക്കും എൻ്റെ സഹോദരിമാർക്കും ഒക്കെ ഉള്ളത് ഞാൻ തയ്ച്ചു പിന്നീട് എൻ്റെ അമ്മയ്ക്കുള്ള ചട്ടയൊക്കെ ഞാൻ തയ്ച്ചിട്ടുണ്ട് ഇപ്പോൾ അമ്മയില്ല അതുകൊണ്ട് ചട്ട ഇപ്പം ഞാൻ ഇപ്പം ആരും ചട്ട ഇടുന്നവർ ഇല്ല അതുകൊണ്ട് ചട്ട തയ്ക്കുന്നില്ല പിന്നീട് ഞാൻ ചുരിദാറൊക്കെ തയ്ക്കാ തുടങ്ങി ചുരിദാറ് ഒക്കെ പിന്നീട് കൊറച്ച് നാള് എടയ്ക്കിങ്ങനെ ഓൺലൈൻ ക്ലാസ് ഒക്കെ കണ്ട് ഞാൻ അതിൻ്റെയെല്ലാം കണ്ട് മനസിലാക്കിയാണ് തയ്ക്കാനായിട്ട് പഠിച്ചത് ചുരിദാറ് തയ്ക്കും അതുപോലെ പിന്നെ ബ്ലൗസ്കൾ സാരി ബ്ലൗസ് അങ്ങനെ നമ്മുടെ ലേഡീസിൻ്റെ മിക്കവാറും ഉള്ള എല്ലാ തുണികളും ഞാൻ തയ്ക്കാറുണ്ട് ഞാൻ തയ്ച്ച് ഇട്ടുകൊണ്ട് പോവുമ്പോൾ എൻ്റെ ഫ്രൻസും എന്നോടിത് കണ്ടിട്ട് അവർക്കും തയ്ച്ച് കൊട്ക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാനവർക്കും തയ്ച്ചുകൊടുക്കാറുണ്ട് അതെനിക്ക് ചെറിയൊരു വരുമാന മാർഗമായിട്ടുണ്ട് പിന്നെ ഇതൊക്കെ കണ്ട് എന്നെ പ്രോത്സാഹിപ്പിച്ച് കുഞ്ഞുങ്ങൾക്കുള്ള ഫ്രോക്ക് കൊച്ച് കുട്ടികൾക്കുള്ള ഫ്രോക്ക് ഒക്കെ നല്ല ഫേഷനിൽ തയ്ക്കാൻ അവർ ഓരോരുത്തർ ഫേഷൻ അനുസരിച്ച് വന്ന് പറഞ്ഞിട്ട് തയ്ക്കാനൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ അതുപോലെ ഫ്രോക്ക് ഒക്കെ തയ്ച്ച് കൊടുക്കാറുണ്ട് അതുപോലെ കല്ല്യാണ ഡ്രസ്സും ബ്ലൗസ്കള് അതൊക്കെ ഞാൻ തയ്ക്കുന്നുണ്ട് അതൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടേറിയതും കൂടുതൽ സമയം എടുക്കുന്നതുമാണ് എന്നാലും ഞാനത് ചെയ്യുന്നുണ്ട് അതെനിക്ക് കൂടുതൽ സന്തോഷവും വരുമാനവും തരുന്ന ഒരു കാര്യമാണ്